നാട്ടില് റസ്റ്റോറൻറ്റുകള് വർധിച്ചുവരുന്നതുകൊണ്ട് കാർഷിക മേഖലയെ അത് കാര്യമായിത്തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വീടുകളിലും കുട്ടികൾക്കെക്കെ ആണെങ്കിലും വീട്ടിലെ ഭക്ഷണം ഒന്നും വേണ്ട റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണങ്ങളാണ് കുട്ടികൾക്ക് ഇഷ്ടം അവര് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഫാസ്റ്റ് ഫുഡ് അങ്ങോട്ട് ഇറങ്ങിനിന്നാല് പെട്ടെന്ന് വാങ്ങിച്ച് കഴിക്കാനായിട്ട് താല്പര്യം രുചി കൂടുതൽ അതിനാണെന്നാണ് അവര് പറയുന്നത് പക്ഷേ വീടുകളിൽ ഉണ്ടാക്കുന്ന കപ്പയോ ചേനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അരി പലഹാരങ്ങളോ ഇതൊന്നും കുട്ടികൾക്ക് താല്പര്യമേ ഇല്ല അവരതൊന്നും കഴിക്കാറില്ല അതുപോലെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരാണെങ്കിലും അങ്ങനത്തെ ഫുഡുകളാണ് താല്പര്യം താല്പര്യം അവർക്ക് അവരും പുറത്തൊക്കെ പോകുമ്പോള് അങ്ങനെയുള്ള ഫഡ് ഫുഡുകള് കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും അതുതന്നെയാണ് താല്പര്യം അതുകൊണ്ട് കർഷിക മേഖലയിലെ ഇന്ന് അത് പച്ചക്കറി ആണെങ്കിലും മറ്റ് പിന്നെ ചേന കാച്ചിൽ അങ്ങനെയുള്ള വിഭവങ്ങൾ ആണെങ്കിലും ഉണ്ടാക്കാനും അത് വിറ്റു പോകാനുമൊക്കെ ഇന്ന് അത് കാർഷിക മേഖലയെ ഒത്തിരിയേറെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വീടുകളിൽ ആണെങ്കിലും ഇന്ന് അതൊന്നും വച്ചുപിടിപ്പിക്കാനോ അല്ലെങ്കില് അതിനെ പരിരക്ഷിക്കാനോ കാർഷിക മേഖലയില് കൂടുതല് വീട് വീടുകളിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാനും അത് കുട്ടികൾക്ക് വെച്ചുകൊടുക്കാനും ഒന്നും വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും അതിനു താല്പര്യമില്ല അത് ന്യൂജെന്നിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് അത് അ അങ്ങനെ പ്രത്യേകതയാണ് അതുകൊണ്ട് കാർഷിക മേഖലയെ അതു സാരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടുതന്നെയാണ് കാണുന്നത്